നമ്മുടെ സംസ്ക്കാരത്തിൻ്റെ എന്നു പറയുന്നത് നെറ്റിയിലെ കുങ്കുമം എന്നു പറഞ്ഞാൽ ഭർത്താക്കന്മാരെ സൂചിപ്പിക്കുന്നതാണ് പൂണൂൽ എന്നു പറയുമ്പം അത് ബ്രാഹ്മിൻസ് ആണ് ചെയ്യുന്നത് അത് അവരെ ഒരു ആചാരമാണ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നത് ബ്രാഹ്മിൻസ് ആണ് ഹിന്ദുക്കൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകും പക്ഷേ പൂജയ്ക്ക് പോകുന്നത് ബ്രാഹ്മിൻസ് ആണ് അതുപോലെ നമ്മൾ നോയമ്പ് നോക്കുന്നത് ഹിന്ദുക്കളും നോക്കും മുസ്ലീമും നോക്കും ക്രിസ്ത്യാനികളും നോക്കും അതുപോലെ ക്രിസ്ത്യാനികൾ അമ്പ് നോമ്പാണ് ഏറ്റവും വലിയ മുഖ്യമായ നൊയമ്പ് മൂന്ന് നൊയമ്പ് നോക്കുന്നവർ ഉണ്ട് തോമ സ്ലീഹിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നു അതുപോലെ ഇരുപത്തഞ്ച് നൊയമ്പ് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ എട്ട് നൊയമ്പ് നോക്കുന്നുണ്ട് പിന്നെ ക്രിസ്ത്യാനികൾ കുറേ നൊയമ്പുകൾ നോക്കുന്നുണ്ട്